വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ കൂടുതലായിട്ടും കുട്ടികളെ നല്ല രീതിക്ക് മുൻപോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഗ്രാമപ്രദേശത്ത് ഉള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറയുമ്പം അവരുടെ അടുത്തുള്ള സ്കൂളുകളാണ് അവർ നോക്കുന്നത് അപ്പം അവിടെയൊന്നും എന്താണ് പറയുക കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അപ്പം പഠിക്കാനായിട്ട് അവർക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ബോർഡ് പിന്നെ ഇരിക്കാൻ പറ്റിയ ബെഞ്ച് ഡെസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വേണ്ടത് പിന്നെ മേ എന്താണ് പറയുക നല്ല രീതിക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരെയൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് എന്നുപറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ നല്ല രീതിക്ക് എന്താണ് പറയുക ഡെസ്കും ബെഞ്ചുകളൊന്നും അങ്ങനെയില്ല വൃ വൃത്തിയുള്ളൊരു എന്താണ് ക്ലാസ്റൂം ആണ് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ അതിനുപറ്റിയ സ്കൂളിന് ചേർന്ന രീതിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താണ് പറയുക ടോയ്ലറ്റ് സംവിധാനങ്ങളോ അങ്ങനെയൊന്നും ഇന്ന് മിക്ക സ്കൂളുകളിലും കാണുന്നില്ല അത് പണിഞ്ഞു തീർക്കുമ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും പിന്നീട് ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്താണ് പറയുക അത് ഒരു വൃത്തിയില്ലാത്ത രീതിക്കാണ് ഇപ്പോൾ എന്താണ് പറയുക ഇപ്പോൾ കുട്ടികളായാലും ഇതാക്കിക്കൊണ്ട് നടക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് അത് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് എന്താണ് പറയുക എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ കൂടുതലും എന്താണ് പറയുക വിദ്യാഭ്യാസ നല്ല ടെക്സ്റ്റ് ബുക്കുകൾ അവർക്ക് വേണ്ട നോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ടീച്ചർമാർ നല്ല രീതിക്കുള്ള ടീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊരു നല്ല കാര്യമായിരിക്കും